സന്തോഷ് ചെട്ടാ നമ്മൾ ഇനി എങ്ങനെയാണ് ഹോസ്പിറ്റലില് വേഗം എത്തുക റോഡൊക്കെ ഇങ്ങനെ ബ്ലോക്കായി നിന്നാൽ നമ്മൾ ഈ കുട്ടിയെയും കൊണ്ട് എപ്പഴാണ് ഹോസ്പിറ്റലിൽ എത്തുക കുട്ടിക്കാണെങ്കിൽ നല്ല പനിയാണ് ഈ ഹോസ്പിറ്റലിന്റെ റോഡൊക്കെ ഇങ്ങനെ ബ്ലോക്കായി കിടന്നാൽ എന്താ നമ്മള് ചെയ്യുക റോഡ് പണിയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റൽ റോഡ് പറയുമ്പോൾ നമുക്ക് എപ്പഴും എന്താവശ്യത്തിനും പോകണ്ട കാര്യമുള്ളത് അല്ലേ എന്താണിങ്ങനെ ഇങ്ങനത്തെ ഒരവസ്ഥ നമ്മുടെ നാടിന്റെ ഒരവസ്ഥ എന്താണ് എത്ര മണിക്കൂറ് കൊണ്ട് നമ്മള് ഹോസ്പിറ്റലിൽ എത്തും ഇത്രയും ചുറ്റിത്തിരിഞ്ഞ് പോരുവല്ലേ നമ്മള് സാധാ നമ്മള് ആ വഴിയിൽ കൂടെ പോകുവാണെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റുകൊണ്ടെത്തുന്ന കാര്യം ഒരു മണിക്കൂറെടുക്കും നമ്മളിങ്ങനെ പോകുവാണെങ്കിൽ അപ്പം അപ്പോഴേക്കും നമ്മള് കുട്ടീനെ എന്താ ചെയ്യുക കുട്ടിക്കാണെങ്കിൽ നല്ല പനിയാണ് ഇത് നമ്മള് നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വഴി പോരണ്ടായിരുന്നു നമുക്ക് അപ്പുറത്തെ വഴിയിൽ കൂടെ പോന്നാൽ മതിയായിരുന്നു ആര് ഭരിച്ചിട്ടെന്താ കാര്യം നമ്മളുടെ നാടിന്റെ അവസ്ഥ ഇതല്ലേ റോഡാണെങ്കിൽ ഈ ഈ തരത്തിലാണെങ്കിൽ നമ്മളെങ്ങനെ എങ്ങൊട്ട് ഒരത്ത്യാവശ്യ കാര്യത്തിന് ഹോസ്പിറ്റലിലെത്തും ഇനിയെന്താണ് അടുത്തൊരു മാർഗ്ഗം എന്താണ് വേഗം എത്താന് നമുക്ക് വല്ല വഴിയും ഉണ്ടോ